ചെടികളും മരങ്ങളും എൻ്റെ തോട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും പുഷ്പിക്കുന്നതും കാണുമ്പോൾ വളരെ വളരെ സന്തോഷമാണ് പലപ്പോഴും തോന്നിട്ടുള്ളത് കാരണം എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീട് ഇവിടെ നിർമിച്ചതിന് ശേഷം എൻ്റെ ഈ പതിനഞ്ച് സെൻറ്റിൽ തന്നെ ഓരോ ചെടികളും ഇല്ലാത്ത ഒരു സഹചര്യത്തിൽ പണ്ട് ഉണ്ടായിരുന്നത് എന്നാൽ ഓരോ ചെടികളും ഓരോ വൃക്ഷങ്ങളും പ്ലാൻ ചെയ്ത് നട്ട് കൃത്യമായ വളപ്രയോഗം നടത്തിക്കൊണ്ട് നല്ല ജലസേചനം നൽകികൊണ്ട് ആ ചെടികളുടെ വളർച്ചക്ക് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കികൊണ്ട് നമ്മുടെ വിശ്രമ വേളകൾ നമ്മൾ ഉപയോഗിച്ചു കൊണ്ട് അവയെ സംരക്ഷിച്ചപ്പോൾ അവ നന്നായി വളർന്ന് വരുകയും വൃക്ഷങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ നന്നായി വളരുകയും അതുപോലെ തന്നെ ചെടികൾ നന്നായി പുഷ്പിക്കുകയും ചെയ്തപ്പോൾ നമ്മളാ പ്രെദേശത്തിനും നമ്മളുടെ സ്ഥലത്തിനും മനോഹരമായി തീരുകയും ചെയ്യുകയാണ് ഉണ്ടായത് ഇത് കാണുമ്പോൾ നല്ല സന്തോഷമാണ് പലപ്പോഴും തോന്നീട്ടുള്ളത്